ഇല്ല തുടർപഠനത്തിന് മറ്റുള്ള സ്ഥലങ്ങളിൽ ആശ്രയിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ തന്നെ എല്ലാ കോഴ്സുകളും ലഭ്യമാണ് നേഴ്സിംഗ് കോളേജുകളിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ എല്ലാം നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടില് തന്നെ ലഭിക്കുന്നുണ്ട് അതായത് ഇപ്പോള് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ തന്നെയാണേലും ഒട്ടേറെ കോഴ്സുകളും ഒട്ടേറെ പി ജി പ്രോഗ്രാമുകളും അതുപോലെ തന്നെ വേറെ ഒട്ടേറെ സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസ് അങ്ങനെ എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ വേറെയുള്ള സ്ഥലങ്ങളിലേക്ക് ആശ്രയിക്കണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ ഈ കോളേജിലായാലും ബി ബി എയുണ്ട് ബി സി എയുണ്ട് ബി എസ് ഡബ്ലിയു ഉണ്ട് എക്കണോമിക്സുണ്ട് ഫിസിക്സുണ്ട് എം എസ് ഡബ്ള്യു ഉണ്ട് ബി കോമുണ്ട് ബി കോമില് തന്നെ ആയാലും പ്രൊഫഷണൽ ബി കോംസുണ്ട് എ സി സി എ ചെയ്യാം സി എം എ ചെയ്യാം സി എ ചെയ്യാം സി എസ് എ ചെയ്യാം അങ്ങനെ കുറേയേറെ ഓപ്ഷനുകളും നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടു തന്നെ നമുക്കു വേറെയുള്ള സ്ഥലങ്ങളിലെ കോളേജുകൾ നമുക്ക് സ്വാധീനിക്കേണ്ട ആവശ്യം ഇതുവരെ നമുക്കു വന്നിട്ടില്ല നമ്മുടെ ഈ കോളേജിലായാലും നല്ല രീതിയില്ത്തന്നെ പഠന പഠന കാര്യങ്ങളും അല്ലാണ്ട്തന്നെ പഠനം കഴിഞ്ഞിട്ട് മറ്റുള്ള കലാപരമായും കായികപരമായ കാര്യങ്ങളിലും നമുക്ക് ഈ കോളേജ് വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട് അതുകൊണ്ടു തന്നെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ നമുക്ക് മറ്റുള്ള സാധ്യതകളെ നമുക്കാശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് കോളേജ് ഈ കോളേജ് വളരെ എല്ലാ കോഴ്സുകളിലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ചെയ്യുന്നുണ്ട് കോളേജിലെ എല്ലാ കാര്യങ്ങളിലായാലും വിദ്യാർത്ഥികളെന്ന നിലയിൽ വേഗം തന്നെ പങ്കെടുക്കുന്നതാണ് കായികമേള അതുകഴിഞ്ഞ് ആർട്സ് ഡേ അതെല്ലാം നമുക്ക് ഏറ്റവും പരിപൂർണ്ണമായ രീതിയില് തന്നെയാണ് നമുക്കിവിടെ ചെയ്തുതന്നുകൊണ്ടിരിക്കുന്നത് കോളേജിൽ എല്ലാ കോളേജുകൾക്കും തന്നെ ഇപ്പോൾ ഞങ്ങള് ഞങ്ങളുടെ ബാച്ചായാലും മൂന്ന് കൊല്ല കോഴ്സാണ് ത്രീ ഇയർ ആണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന ജൂനിയേഴ്സിനാണ് കോഴ്സുകൾ നാലു കൊല്ലം എന്ന രീതിയിലാണ് ഇപ്പോള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് സ്പെഷ്യലൈസ്ഡായിട്ട് അവർക്കു സ്വന്തം ഡിപ്പാർട്ട്മെൻ്റിൽ ഒത്തിരി നേരങ്ങളോളം ഇരിക്കേണ്ട ആവശ്യകത വരുന്നില്ല വേറെയുള്ള വേറെയുള്ള ഡിപ്പാർട്ട്മെൻ്റിൽ പോയിട്ട് വേറെ സബ്ജക്റ്റുകളാണ് അവര് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടു തന്നെ കോറായിട്ടൊരു സബ്ജെക്റ്റും ബാക്കിയെല്ലാം മൈനറായിട്ടാണവർക്ക് നൽകുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പോള് നമ്മുടെ പുറത്തുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് അതേ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ കോളേജിന് നമ്മുടെ ഈ കോളേജ് വന്നിരിക്കുന്നത് ഇടുക്കി ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനമെന്ന സ്ഥലത്താണ് ഇഷ്ടം പോലെ കുട്ടികളും പുറത്തുനിന്നും വേറെയുള്ള സ്ഥലങ്ങളിലും നമുക്കിവിടെ വന്ന് പഠിക്കുന്നുണ്ട് കോളേജിന്റെ നിലവാരമനുസരിച്ചാണ് കുട്ടികളിവിടെ പഠിക്കാൻ നോക്കുന്നത് അതുകൊണ്ടു തന്നെ ഇവിടത്തുള്ള കാലാവസ്ഥ രീതികൾ അഡ്മിനിസ്ട്രേഷൻ ഫുഡ് ഹോസ്റ്റല് എല്ലാം തന്നെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ആനുകൂല്യമായി പ്രസ്താവിക്കുന്നുണ്ട് നമുക്കിത് ഏറ്റവും കൂടുതല് ഉപകാരപ്പെടുന്നുണ്ട് കോളേജിലെ എല്ലാ സൗകര്യങ്ങളും തന്നെ നമുക്ക് പല സൗകര്യങ്ങളിൽ തന്നെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രീതി ഒട്ടും മികച്ചതല്ല എന്ന ആശയ വിനിമയത്തില് തന്നെ പക്ഷേ അതിൻ്റെ ഒരാവശ്യമായി ഞാൻ കണക്കാക്കുന്നില്ല നമ്മളീ കോളേജില് തന്നെ നമ്മുടെ ഈ ജില്ല നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള കോളേജുകളിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സാംസ്കാരികമായും സാമ്പത്തികമായും ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്കു മെച്ചമുളളതായിരിക്കും അതുകൊണ്ടുതന്നെ ഈ പുറത്തേക്കു പോകുന്ന കുട്ടികളെല്ലാവരും അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടിൽ അവർ കൂടുതൽ വിദ്യാഭ്യാസം അവിടെനിന്നാണു ലഭിക്കുന്നത് ജോലി ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് പക്ഷെ ആ കാഴ്ചപ്പാടുകളെല്ലാം തള്ളി നമുക്ക് നമ്മുടെ സ്ഥലങ്ങളിൽ തന്നെ കോളേജുകളിൽ തന്നെ അഡ്മിഷനെടുത്ത് അവിടെ തന്നെ പഠിച്ച് അതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം എല്ലാം കൊണ്ടും തന്നെ നമ്മളീ കോളേജേറ്റവും പരിപൂർണമായും പിള്ളാർക്കേറ്റവും സപ്പോർട്ട് നൽകുന്നു അവരുടെ കായികമായും കലാപരമായ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പിള്ളേര് പഠികാൻ പോകുന്നതും അവരുടെ കാഴ്ചപ്പാടുകൾ വേറെയാണ് അതാണ് മെയിൻ കാരണമായിട്ടു വരുന്നത് അതുകൊണ്ടു തന്നെ എല്ലാ കോഴ്സ് എഞ്ചിനീയറിങ് കോളേജാണ് തൊട്ടടുത്തുള്ളത് അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജ് തൊട്ടടുത്തുണ്ട് അതുപോലെ തന്നെ ഈ കോളേജിലായാലും എല്ലാത്തിന്റെ കോഴ്സുകളുമുണ്ട് ബി കോമിലേക്കാണ് ഇഷ്ടം പോലെ പിള്ളേര് അതുകൊണ്ടു തന്നെ വേറെ സ്ഥലങ്ങളിൽ പോകുന്നതിന് അതൊരു ഉചിതമായ കാരണമാണെന്നു ഞാൻ പറയുന്നില്ല അവർക്ക് അവരുടേതായ രീതികളിൽ അവര് പോകുന്നു അത്രോള്ളു അല്ലാണ്ട് സ്വന്തം കോളേജിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളില് പഠിക്കുകയാണെങ്കില് അവർക്ക് ഏറ്റവും കൂടുതല് സാമ്പത്തികപരമായി മുന്നോട്ടെത്തിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്